വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് നമുക്കിപ്പം കുടുതലും സ്ക്കൂളുകളാണ് സ്ക്കൂളുകളിലിപ്പം കാട്ടിക്കുളം എന്നു പറഞ്ഞ സ്ഥലത്ത് സ്കൂളുണ്ട് മാനന്തവാടി ഗവൺമെൻ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻ്ററി സ്ക്കൂൾ ഉണ്ട് പിന്നെ എസ് കെ എൻ ജെ ഉണ്ട് മെയിനായിട്ട് മാനന്തവാടിയിലെ ഏറ്റവും വലിയ സ്ക്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് കെ ഇത് വയനാട് എന്താ പറയുക മാനന്തവാടി വൊക്കേഷണൽ ഹയർ സെക്കൻ്ററി സ്കൂളാണ് വലുത് അവിടെയാണ് മെയിനായിട്ട് സ്പോർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുക പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് കെ എൻ ജെ ആണ് അത്യാവശ്യം വലിയ ഗ്രൗണ്ടും അവിടുത്തെ ആണ് പിന്നെയുള്ളത് കോളേജുകൾ കോളേജുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനന്തവാടി ഗവൺമെൻ്റ് കോളേജ് പിന്നെ ബത്തേരിയുണ്ട് രണ്ട് മൂന്ന് കോളേജ് പിന്നെ ഡോൺ ബോസ്ക്കോ അങ്ങനത്തെ കുറേ കോളേജുകൾ ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി ഐ ടി ഐ ഇവിടെയൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊഴിലിനു വേണ്ടി പഠിക്കുന്ന സ്ഥലങ്ങളാണ് അതായത് തൊഴിലിലേയ്ക്ക് പ്ലംബിങ്ങ് ഇലക്ട്രിഷ്യൻ പിന്നെ മെക്കാനിക്കല് സിവില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അവിടെയാണ് ഇവിടെയൊക്കെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമായ ഫീസാണ് ഈ ഗവൺമെൻ്റിലൊക്കെ ഉള്ളത് തുച്ഛമായ ഫീസാണ്